ഞാൻ വീട്ടിലൊര് മെഷിനുണ്ട് ആ മെഷീനിൽ ഞാൻ തുന്നലുണ്ട് ഞാൻ എനിയ്ക്കാവശ്യമുള്ള എൻ്റെ ചുരിദാറ് കള് എൻ്റെ സൽവാറ്കള് എൻ്റെ കുർത്തീസ്സ് ഒക്കെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാറ്ണ്ട് ഞാൻ എന്റെ അമ്മയുടെ സാരി വെച്ച് ഞാൻ ചുരിദാറ്കള് തയ്ക്കാറുണ്ട് പക്ഷേ ഞാൻ വേറെ ആർക്കും ഞാൻ തൈച്ച് കൊടുക്കാറില്ല ഞാനെനിക്കും എൻ്റെ അമ്മയ്ക്കും ആവശ്യമുള്ള ചുരിദാറുകളൊക്കെ ഞാൻ തയ്ക്കാറുണ്ട് ചുരിദാറ് മാത്രമേ ഞാൻ തയ്ക്കാറുള്ളു ബ്ലൗസ്സ് ജാക്കറ്റ്സ്സ് അങ്ങൻത്തെ വലിയ വലിയ ഐറ്റംസിൽക്കൊന്നും ഞാൻ പോയിട്ടില്ല എനിയ്ക്കധികം അതിൽ ഒരൂ ഒരു ഒരു ഇൻസ്പയേർഡ് ആയിട്ടുള്ള ഒരാളൊന്നുവല്ല ഞാനതിൽ എനിക്ക് വലിയൊരു താല്പര്യമോ അതെൻ്റെ ഹോബിയോ അല്ല ഞാനെപ്പൊഴങ്കിലും ഒന്ന് അടിച്ചു നോക്കും എന്ന് മാത്രം ഉള്ളു അപ്പോൾ കൂടുതലായിട്ടുള്ള ശൈലികളോ ഒന്നും എനിക്കറിയില്ല ഞാനെപ്പൊഴെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ രീതികൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ യൂറ്റൂബിലടിച്ച് നോക്കാറാണ് പതിവ് ഞാൻ യൂറ്റൂബില് സിമ്പിളായിട്ടടിച്ച് നോക്കും ഞാനത് കണ്ട് പടിച്ച് ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യും അല്ലാതെ ഞാൻ പഠിക്കാൻ പോയിട്ടോ ഒന്നുമല്ല ഞാനെൻ്റമ്മ ചെയ്യുന്നത് കണ്ട് പടിച്ച് അല്ലെങ്കിൽ ഞാൻ യൂറ്റൂബിൽ നിന്ന് പഠിച്ച് അങ്ങനെ ഒക്കെ ഉള്ളു അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് എഫർട്ട് എടുത്ത് ഞാന് ഒരു സ്കൂൾ പോയിട്ട് ഞാനൊരു ക്ലാസിൽ പോയിട്ടോ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ എന്റേതായിട്ട് രീതിക്ക് ഞാൻ ചെയ്യുന്നതാണെൻ്റെ തുന്നല് എന്ന് പറയുന്നത് എനിക്കാവശ്യമായിട്ടുള്ള തുന്നലുകൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളു ഞാൻ നാട്ടിലാർക്കും ഞാൻ തുന്നിക്കൊടുക്കാറില്ല എൻ്റെ വീട്ടിൽ വേറെ ആർക്കും ഞാൻ തുന്നാറില്ല ഞാനെൻ്റെ കാര്യങ്ങൾ എനിക്ക് വേണ്ടിയാൻ എൻ്റെ മമ്മിക്ക് വേണ്ടി ഞാൻ തുന്നാറുണ്ട് അത്ര തന്നെ ഉള്ളു അല്ലാതെ ഞാൻ പുറത്ത് ഒരു ബിസിനസ്സായിട്ട് ഞാനതിനെ കൊണ്ട് നടക്കുന്നില്ല